ആ ഞാനും കണ്ടു ടീച്ചറെ ഇപ്പം എത്ര ദിവസം മഴ കാരണം അവധി ആയിരിക്കുന്നു ഞാനും അത് തന്നെ ആലോചിക്കുന്നത് എനിക്കും ഒരുപാടുണ്ട് പഠിപ്പിച്ച് തീർക്കാനൊക്കെ ഓണം എക്സാമിന് മുന്നെ തീർക്കാനുള്ള പോഷൻസ് ഇനിയും കഴിഞ്ഞിട്ടില്ല എങ്ങനെ പോയാൽ അതൊക്കെ എപ്പോഴാണ് എടുത്ത് തീർക്കുന്നതെന്ന് പോലുമറിയില്ല അതാണ് പിന്നെ സ്പെഷ്യൽ ക്ലാസൊക്കെ വച്ചല്ലേ തീർക്കുന്നെ

അത് പ്രിൻസിപ്പൾനോട് നമുക്ക് പറയാം അറ്റന്റൻസ്സ് കർശനമാക്കണം പിന്നെ സാറ്റഡെ അറ്റന്റൻസ്സ് ഇമ്പോട്ടൻ്റാണെന്ന് പിള്ളേരോട് പറഞ്ഞു മനസ്സിലാക്കണം അത് ശരിയാണ് എന്നാലെ പിള്ളേർ ക്ലാസിന് വരത്തൊള്ളു സ്പെഷ്യൽ ക്ലാസ്സ് വയ്ക്കാതിരിക്കാൻ എന്തെങ്കിലും പറ്റില്ല ഇനി വല്ല സമരമോ ഹർത്താലോ വരുമ്പം അങ്ങനേയും കുറെ ക്ലാസ്സ് പോവും അങ്ങനെയാണെങ്കിൽ സിലബസ്സ് തീർക്കാൻ പാടായിരിക്കും അതാണ് ടീച്ചറെ എന്നാലേ ഓണം എക്സാമിന് മുന്നേ സിലബസ്സ് കമ്പ്ലീറ്റ് ചെയ്യാൻ പറ്റൂള്ളൂ പിന്നെ പോഷൻസ്സ് തീർത്ത ടീച്ചർമാരോട് ക്ലാസ്സ് ചോദിച്ച് വാങ്ങിയാലെ ക്ലാസ്സ് കമ്പ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഓ ടീച്ചറെ ഓക്കെ